ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടികൾ കളിക്കുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ അത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇവർ കളിക്കും അതു ചെറിയ പന്തുണ്ടാകും കളിക്കുക അപ്പോൾ ഞാൻ പറയും കുറച്ചു വലിയ പന്തു വാങ്ങിക്കൂടെ നിങ്ങൾക്ക് അപ്പോൾ ഓര് ഓരോ വീട്ടിൽ കൂടിയും വന്നു പിരിവു നടത്തി വലിയ പന്തു വാങ്ങി അതുകൊണ്ട് രാവുമില്യ പകലുമില്ലയെന്നു പറയണ മാതിരി പന്തു കളിച്ചു കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്കൂളുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് അല്ലെങ്കിൽ രാവിലെ കുറച്ചു നേരം കളിക്കും പിന്നെ അതേപോലെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് വൈകുന്നേരവും കളിക്കും പന്തു കളി പിന്നെ ക്രിക്കറ്റ് അതും തന്നെ ആൺ ആൺകുട്ടികളാണ് ഇവിടെ അധികവും കളിക്കണത് പെൺകുട്ടികളങ്ങനെ കളിക്കണോന്നുമില്ല ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ പിന്നെ അത്ര തന്നെയുള്ളൂ കളി